നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാമീണ സമുദായത്തിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പാരമ്പര്യമായ നൃത്ത രൂപങ്ങൾ സൂക്ഷിക്കേണ്ടതായ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് മെച്ചപ്പെടുത്തേണ്ടതായ കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ഇപ്പം ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കു നയിക്കും കാരണം നമ്മുടെ പുതിയ തലമുറ ഈ നിർത്തിയ നൃത്ത രൂപങ്ങളൊന്നും ക കണ്ടിട്ടേയില്ല കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൃത്തരൂപങ്ങളെന്നു പറഞ്ഞാൽ പലതരത്തിലേക്കാണ് പോകുന്നത് അപ്പം ഈയൊരു പുതിയ തലമുറയെ നമുക്ക് വാർത്തു നമുക്ക് നമ്മുടേതായ രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് പഴയ നൃത്തരൂപങ്ങളിലേക്കു നമുക്ക് ഇറങ്ങി ചെല്ലേണ്ട ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതായ കാര്യമുണ്ട് കാരണം നമ്മളാണ് ആ ഒരു നൃത്തരൂപത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളു നൃത്തം എന്തുവാണെന്നും നൃത്തത്തിൻ്റെ കാലാരൂപം എന്തുവാണെന്നും അതിനെപ്പറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രാധാന്യമായ കാര്യം എന്നായെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നൃത്തം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതായത് അതിനെ കുറച്ചും കൂടി ഒന്ന് ഭ ഭംഗിയാക്കി ആ പഴയതായരി പഴയ രീതി പഴയ രീതിയിലേക്കു പഴയ രീതിയിൽ നൃത്തം ഇപ്പം എല്ലാം പതുക്കെ പതുക്കെ നിർത്തലാക്കുകയാണ് കാരണം ആരുമില്ല അതിനെപ്പറ്റി ഇപ്പം ആരുമില്ല അതിനെയൊന്ന് പുകഴ്ത്താനോ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാനോ ആ ഒരു കാലാ വാസനയെ മനസ്സിലാക്കാനോ ഇപ്പം അതിന് ആരുമില്ല അപ്പം ആ കലാവാസനയെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കാ കലാവാസന ഉണ്ടാകണമെങ്കിൽ നമ്മളാദ്യമേ ആ നൃത്തത്തെ പറ്റി കൂടുതൽ ഗ്രാഹ്യമായിട്ട് അറിയണം അതെങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും അതിനെ മെച്ചപ്പെടുത്താന് വേണ്ടി സാധിക്കും അതിനെ മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അഞ്ചു കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഒന്ന് ആ കാ ആ ഒരു നൃത്ത രൂപത്തെ നമ്മൾ കൂടുതലാൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കണം കൂടുതലാൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം രണ്ടെന്നു പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഒരു നൃത്തരൂപത്തെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു നൃത്ത രൂപത്തെ നമ്മൾ പുതിയ അതൊരു തലമുറയുമായിട്ട് കുറച്ചുംകൂടിയൊന്ന് പാകപ്പെടുത്തി പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും കുറച്ചും കൂടി ഇടകലർന്നു നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊരു ഭ ഭംഗിക്ക് നമുക്കതിനെ കൊണ്ടു വരാൻ വേണ്ടി പറ്റും അപ്പം അപ്പം നമുക്ക് പഴയ തലമുറയിനെ സാ ര രസിപ്പിക്കാൻ പറ്റും പുതിയ തലമുറയിനെ രസിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ രണ്ടു കാര്യത്തെ രസിപ്പിക്കണമെങ്കിൽ നമുക്കീ രണ്ടു കാര്യത്തെ കൂടുതലായിട്ടും നമുക്കറിയാൻ പറ്റും ഈ രണ്ടു കാര്യത്തെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് പിന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും രണ്ടാം മൂന്നാമത്തെ കാര്യം വളരെ വളരെ വളരെ വളരെ വളരെ ഒരു അനിവാര്യമായ കാര്യമാണ് ഈ നൃത്തരൂപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻറ്റേതായ വേഷഭൂഷകൾ കുറച്ചും കൂടൊന്നു ഭംഗിക്ക് കൊണ്ടു വരാൻ വേണ്ടി സാധിക്കും പഴയ രീതിയിൽ പഴയ രീതി പഴയ രീതിയിൽ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഇടുക ഇടണം അതിനോടൊപ്പം തന്നെ പുതിയ രീതിയും കൂടൊന്നു സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക പാരമ്പര്യം എപ്പോഴും പാരമ്പര്യമായി നൃത്ത ചുവടുകളെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യകരമായ കാര്യമാണ് കാരണം ഞങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയെ കുറേ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയെ പഴയ കാര്യങ്ങളിലേക്കു നമുക്ക് ഗ്ര കൊണ്ടു വരാൻ സാധിക്കുമെന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആശംസിക്കുന്നു